റേഡിയോയില് വാര്ത്തകള് കേള്ക്കാന് ഞങ്ങള് വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പണ്ട് കാലങ്ങളില് നമ്മൾ എന്നും വാര്ത്ത കേട്ട് കേട്ട് കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമായിരുന്നു റേഡിയോ എന്നുള്ളത് വാര്ത്തകള് മാത്രമല്ല അതുപോലെ തന്നെ ഏത് പരിപാടികളിലും അതായത് നമ്മൾ ചുറ്റുപാടും ഉള്ള കാര്യങ്ങളെല്ലാം അറിയാന് തന്നെ നമ്മളെ സഹായിച്ചിരുന്ന ഒന്നായിരുന്നു നമ്മുടെ ഈ റേഡിയോയെന്ന് പറയുന്നത് ആ പണ്ട് കാലങ്ങളിലിത് നമ്മള് വളരെ അധികമായി ഉപയോഗിച്ചിരുന്നു ഇന്നത്തെ കാലങ്ങളിൽ ഈ കുട്ടികള്ക്ക് റേഡി എന്താണെന്ന് പോലും അതിനകത്തെന്തൊക്കെ ഉണ്ടെന്നോ അത് എങ്ങനെ ഇരിക്കുന്നുവെന്ന് പോലും ഈ സമയത്തുള്ള കുട്ടികളിൽ അറിവില്ലാത്ത ഒന്നാണ് പണ്ട് കാലങ്ങളില് നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടിരുന്ന ഒന്നാണ് റേഡിയോയില് കൂടി വാര്ത്തകള് കേക്കാനും പാട്ടുകള് കേള്ക്കാൻ അത് മാത്രമേ അന്നൊരു മാധ്യമമായിട്ട് അതായത് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് അറിയാൻ അറിയാൻ ഉപയോഗിക്കുന്നൊരു മാധ്യമമായിട്ട് പണ്ട് കാലങ്ങള് മുതലേ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ബാട്രികളില് ഉപയോഗിച്ചിരുന്ന പോലെ തന്നെ കരണ്ട്കളിലും കരണ്ട്കളിലുമായിട്ട് പ്രവര്ത്തിച്ചിരുന്ന സമയത്തും ഈ റേഡിയോ നമ്മൾ രീതീലിപ്പം നമ്മളില് നിന്ന് ഏറ്റോം അന്യമായി ഒരു ഉപകരണമായി മാറിയിരിക്കുന്നു റേഡിയോയെന്ന് പറയുന്ന മാധ്യമം പിന്നിപ്പഴും നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിലത് കേള്ക്കാന് നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അതില് തന്നെ പല തരത്തിലുള്ള ചാനലുകള് നമുക്ക് ആകാശവാണി അതുപോലെ തന്നെ പല തരത്തില് അതിന് ശേഷം വന്ന കുറെ എഫ് എമ്മ് ആയിട്ടുള്ള കുറെ പാട്ടുകള്ക്ക് ഉപയോഗിച്ചോണ്ടിരുന്ന കുറെ ചാനലുകളുണ്ടായിരുന്നു പണ്ട് കാലങ്ങളില് നമ്മളെന്നും ആകാശവാണിയായിരുന്നു കേട്ടോണ്ടിരുന്നത് അതില് തന്നെ പല തരത്തിലുള്ള പരിപാടികള് നമ്മളെ വളരെയേറെ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് ഒരാഴ്ചക്കുള്ള എല്ലാ പ്രോഗ്രാ പ്രോഗ്രാമുകള് പരിപാടികളെപ്പറ്റിയും അതിൽ ഒരാഴ്ച അതായത് ഒരു ശനിയാഴ്ച വൈകുന്നേരം അല്ലെങ്കില് രാത്രി കാലങ്ങളിൽ അതിനെപ്പറ്റി നമ്മളോട് ആ അവർ ആ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം എടുത്തു ഒരു തിരനോട്ടം എന്ന രീതിയില് നമ്മളോടവർ നം അറിയിച്ചിരുന്നു അതായിരുന്നു നമ്മുടെ ഏറ്റവും ഉപയോഗപ്പെട്ടിരുന്ന ഒരു മാധ്യമം എന്ന് പറ അതായത് നമ്മുടെ ചുറ്റുപാടും നമുക്ക് ചുറ്റുപാടും എന്തൊക്കെ നടക്കുന്നു നമ്മുടെ ലൊ ഇന്ട്യേലെന്തൊക്കെ നടക്കുന്നു കേരളത്തിലെന്തൊക്കെയാണ് എന്ന് വാര്ത്തകൾ അറിയാന് വെറും പതിനഞ്ച് മിനിറ്റ് വാര്ത്ത ഒരാഴ്ച്ചയിൽ നമുക്ക് അതെങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ക് നടക്കുന്നു എന്നുള്ളത് നമ്മൾ റേഡിയോ മുഖേന അറിഞ്ഞിരുന്നോണ്ടാണ് അതിന് നമ്മളെ ഏറ്റവും സ്വാധീനിച്ച ഒന്നാണ് ആകാശവാണി അതിൽ ഓരോ ആള്ക്കാരും അവരുടെയോ നമുക്ക് ഏറെ പരിചയമായ അവരുടെ ശബ്ദം നമ്മൾ എന്നും അത് തിരിച്ചറിയുന്നുണ്ടായിരിക്കും ഇതാരാണ് എന്താണ് സംസാരം സംസാരിക്കുന്നത് അത് ഓരോന്ന് നമ്മൾ നേരെ അറിയുന്നുണ്ട് അറിയുന്നു അറിയുന്നു അറിയാമായിരിക്കും ഓരോ ദിവസം കഴിയും തോറും നമുക്കവരെ ഏറെ സുപരിചിതമാണ് മുഖവും അവരുടെ രൂപവും ഒന്നും കണ്ടില്ലെങ്കില് കൂടെ അവരുടെ ശബ്ദം നമ്മളെ ഏറെ സ്വാധീനിച്ച ഒന്നാണ് അതുപോലെ തന്നെ അതില്ക്കൂടി പ്രവര്ത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ പാട്ട് ചലച്ചിത്രഗാനങ്ങൾ നമ്മളെ ഏറെ സ്വധീനിച്ചിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ പതിനഞ്ച് മിനിറ്റ് വാര്ത്ത അതുപോലെ നാടകം കഥാപ്രസംഗം തുടങ്ങിയ പല വൈവിധ്യം വൈവിധ്യങ്ങളാര്ന്ന പലതരത്തിലുള്ള പരിപാടികള് നമുക്കടെ ചുറ്റുമുള്ള പരിപാടിയും കുറഞ്ഞ് സമയത്ത് നമ്മളെ കേള്ക്കാനും പ്രേരിപ്പിച്ചിരുന്ന ഒന്നാണ് ഈ റേഡിയോയെന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ റ്റാ സമയം നമ്മൾ ക്ലോക്കില് നോക്കി സമയം കണ്ട് പിടിക്കുന്നതിലും അപ്പുറമാണന്ന് റേഡിയോയിലൂടെ ഓരോ പരിപാടികൾ പരിപാടികളിലൂടെയും നമ്മള് കേട്ട് ഈ പ ഇന്ന ഇത്ര സമയമായി എന്ന് നമ്മള് മനസ്സിലാക്കിക്കൊട്ടുതരം മാധ്യമമായിരുന്നു റേഡിയോ ഇപ്പം പീ നമ്മളില് നിന്നും വളരെ അന്യമായി നിന്നിരിക്കുന്ന ഒരു ഒന്നായി മാറിയിരിക്കുന്നു റേഡിയോയെന്നുള്ളത് പിന്നെന്ന് പറയുമ്പോള് ഇപ്പോൾ കുട്ടികള് പോലും റേഡിയോയെന്ന വാക്കോ ഒന്നും കുട്ടികളില് പോലും വളരെ അറിവില്ലാത്ത ഒന്നായി മാറിയിരിക്കുന്നു അതെന്തുവായിരുന്നെന്ന് പോലും അവർ കണ്ടിട്ട് കൂടിയില്ലാത്ത ഒന്നായി മാറിയിരിക്കുന്നു റേഡിയോ എന്നുള്ളത് പിന്നെ പിന്നെ നമ്മളെന്നും അതിനകത്ത് അതില്ക്കൂടി കേള്ക്കാനാഗ്രഹിച്ചിരുന്ന ഒന്നാണ് ആഴ്ച ഒരു ദിവസം ഒള്ള ഒരു നാടകമായാലും ഇപ്പം നാടകം അങ്ങനുള്ള പരിപാടികളൊന്നും കു ആരുടെ കയ്യിലും കിട്ടുന്നില്ല കുട്ടികള്ക്കും കിട്ടുന്നില്ല ആര്ക്കും കിട്ടുന്നില്ല അന്ന് പക്ഷേ നമ്മള്ക്ക് എന്നും നാടകമായാലും കഥാപ്രസംഗം ആയാലും പിന്നെ പാട്ടുകൾ പല തരത്തിലുള്ള പ്രോഗ്രാംസ് ന്യൂസ് കാലാവസ്ഥ ഇപ്പം നമുക്ക് അറിയില്ല കാലാവസ്ഥയൊക്കെ ഇപ്പം വളരെ ഫോണിലൊക്കെ ഇന്റെര്നെറ്റ് വന്നതോടുകൂടി നമ്മളതെല്ലാം അല്ലാതെ അറിയുന്നതാണ് അന്ന് നമ്മളെയെല്ലാം അറിയിച്ചിരുന്ന ഒരേയൊരു മാര്ഗമാണ് ഈ റേഡിയോയെന്നുള്ള ഒരു മാര്ഗം വളരെ ഫലപ്രദമായതും വളരെ മനുഷ്യനെ സ്വാധീനിച്ചിട്ടുള്ളതും നൊസ്റ്റാള്ജിക് പരമായിട്ടുള്ള ഒന്നായി മാറിയിരിക്കുവായിരുന്നു ഈ റേഡിയോയെന്നുള്ളത് മനുഷ്യനെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള നല്ലൊരു മാധ്യമങ്ങളിൽ ഒന്നായിരുന്നു റേഡിയോ എന്നുള്ളത് അതിൽ എല്ലാം ഈ ആകാശവാണിയാണ് ഏറ്റവും കൂടുതൽ ആള്ക്കാരിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു മാധ്യമം എന്നുള്ളത് അതുപോലെ തന്നെ പല തരത്തിലുള്ള പാട്ടുകള് കേള്ക്കുന്നതിലും ഒക്കെ മനുഷ്യനെ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് ഈ റേഡിയോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ സമയം അറിയുന്നതിനും ഒക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടും മനുഷ്യനെ സഹായിച്ചിട്ടുള്ള മനുഷ്യന്റെ ജ ദൈനംദിന് ദൈനം ദൈനംദിന ജീവിതത്തിൽ ഇപ്പമൊരു മാ ഒരു ഒഴിച്ച് കൂടാന് പറ്റാത്ത ഒരു കാര്യമായി മാറിയിരുന്നു ഈ റേഡിയോ എന്നുള്ളത്